എന്റെ ഒരു ചെറിയ സംരഭമാണ് ഒരു ചെറിയ തയ്യല്ക്കട അതില്നിന്നും ഞാനത് എന്ജോയ് ചെയ്യുന്നുണ്ട് അതെന്റെ സമയം സമയം പോകാന് ഉപകരിക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് എനിക്കൊരു വരുമാനമുണ്ട് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പിന്നെ മെയിന് ആയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഒരുപാട് ആള്ക്കാരുമായിട്ട് മിങ്കിള് ചെയ്യാന് പറ്റുന്നുണ്ട് ഒരുപാട് ആള്ക്കാരുടെ വേദനകളും സന്തോഷങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളും എല്ലാം ഷെയറ് ചെയ്യാന് പറ്റുന്നുണ്ട് അത് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് പോസിറ്റിവായിട്ടും നെഗറ്റിവായിട്ടും ഉള്ളത് അതൊക്കെ ആ ആള്ക്കാരുമായിട്ട് മിങ്കിള് ചെയ്യുമ്പം അവര്ക്കൊരാശ്വാസം നമുക്ക് അവരെ ആശ്വസിപ്പിക്കാന് പറ്റും അതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് മനുഷ്യരെ അപഗ്രഥിക്കാന് എനിക്കത് സാധിക്കുന്നുണ്ട് കാരണം പല ആള്ക്കാരുടേയും പല സ്വഭാവങ്ങൾ മോശമായിട്ടുള്ള അനുഭവങ്ങളുമുണ്ട് നല്ല അനുഭവങ്ങളുമുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പൈസ തരാതെ ഒരു വക കള്ളത്തരത്തിന്റെ വഴിയിലുള്ള ഒരുപാട് ആള്ക്കാരെ പരിചയപ്പെടാന് പറ്റിയിട്ടുണ്ട് ഞാന് മറന്നാലും അതെന്നെ ഓര്മ്മിപ്പിച്ച് തരുന്ന ഒത്തിരി നല്ല മനസ്സുകളെ മനസ്സിലാക്കാന് പറ്റിയിട്ടുണ്ട് പിന്നെ ഒത്തിരി വഴിപോക്കർ റോഡ് സൈഡില് ആണെന്റെ ചെറിയ സംരംഭം അപ്പം റോഡ് സൈഡിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അപരിചിതരെ അവരെയൊക്കെ കാണാനും അവരുടെയൊക്കെ ഒരു പെരുമാറ്റ രീതികളും പിന്നെ ഇപ്പോഴത്തെ യുവാക്കൾ യുവ കുട്ടികളുടേയും വലിയവരുടേയും ഒക്കെ പെരുമാറ്റങ്ങളും കാലത്തിന്റെ മാറ്റങ്ങളും എല്ലാം എനിക്ക് മനസ്സിലാക്കാന് ഒത്തിരി ഉപകരിക്കുന്നുണ്ട് പിന്നെ ഒരു ഡിപ്രഷനും ഒന്നും കൂടാതെ മനസ്സിനെ നമുക്ക് ഡിപ്രഷനുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്നു മറക്കാനും പല ആള്ക്കാരുമായിട്ട് മിങ്കിള് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പിന്നെ ഏകാന്ധത ഒരു ഒരു പരുതിവരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഏകാന്ധതയെ അതില്നിന്ന് ആസ്വദിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചിന്തിക്കാനും അറിയാനും മനസ്സിലാക്കാനും അങ്ങനെ എനിക്ക് എന്റെ സമയം ഉപകാരപ്രദമായി ഉപയോഗിക്കാനുമൊക്കെ ഇത് കഴിയുന്നുണ്ട്